അതെ ഫ്ലവർസ് ആണ് എന്തായിരുന്നു മാം പറഞ്ഞോളൂ ഫ്ലവർസിന്റ്റെയോ എന്തായിരുന്നു അതായത് ഒക്കേഷൻ എന്തായിരുന്നു

ഓക്കേ അപ്പോൾ എന്തെങ്കിലും തീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കേ ഓക്കേ ഓക്കേ ഫ്ലവർസ് അവൈലബിളാണിപ്പോൾ നമുക്ക് നാളെയാണ് അത് കൊണ്ട് വരികയുള്ളൂ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഫ്ലവർസ് വേണമല്ലോ അതുകൊണ്ട് നാളെയാണ് കൊണ്ട് വരികയുള്ളൂ ഇപ്പോൾ നമ്മളുടെ കയ്യില് സ്റ്റോക്സ് ഉണ്ടാവുകയില്ല നമ്മള് നാളത്തേക്ക് അത് എപ്പോഴാണ് ഒക്കേഷൻ എപ്പോളാണ് വരുന്നത് പതിനൊന്നര അല്ലെ കുഴപ്പമില്ല ഞങ്ങൾ ഒരു ഒരു ഒരു ടു വൺ ഹവർനു ടു ഹവർ മുൻപ് തന്നെ ഞങ്ങൾ വന്ന് ഫിക്സ് ചെയ്തു തരാം ഞങ്ങള് പോ ബൊക്കേസ് ആയിട്ടും സെറ്റ് ചെയ്തുതരും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേജിലോക്കെ ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യും പിന്നെ മറ്റേ വാക് വെയിലും വാക് വെയിലും സെറ്റ് ചെയ്തുതരും പിന്നെ നമുക്ക് ഇപ്പോൾ എക്സ്ട്രാ ആയിട്ടിപ്പോൾ ആർച്ചുപോലെ ഫ്രണ്ടില് ഡോർ വെയിന്റെ അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല ഇപ്പോൾ പറഞ്ഞോളൂ മാം ഓക്കേ അപ്പോൾ ഫ്രണ്ടിൽ ആർച്ചുവേണം ഗേറ്റിന്റെ അവിടെ ഡോർ വെയ്റ്റവിടെ അപ്പോൾ അത് വേണ്ടല്ലോ ഓക്കേ ഓക്കേ പിന്നെ സ്റ്റേജിൽ എങ്ങനെയാണ് എനിക്ക് സ്റ്റേജിന്റെ ഒരു ഒരു എന്തെങ്കിലും അതായതു ഇപ്പോൾ നിങ്ങൾ ഉദേശിക്കുന്ന എങ്ങനെ ആണെന്ന് ചെയ്യാനുദ്ദേശിക്കുക ആണെന്നുള്ളതിന്റെ ഒരു എന്തേലും പിക്ചറോ അങ്ങനെ എന്തേലും അങ്ങനെയെന്തെലും അയച്ചു തന്നിരുന്നേൽ നല്ലതായിരുന്നു വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ ഓക്കേ നമുക്കത് ചെയ്യാം അത് നമ്മള് അതായത് നമ്മളവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക നമുക്കൊരു വൺ അവർ ഓർ ടു അവർ അതിനകത്തു നമുക്ക് ചെയ്തു തരാൻ പറ്റും അതെ ഓക്കേ അപ്പോൾ പ്രോപ്പർട്ടീസ് കൊണ്ടുവാ നമുക്ക് ആ പ്രോപ്പർട്ടീസിലും നമ്മള് ചെയ്തു തരും അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു തരാം അത് കുഴപ്പമില്ല ഞങ്ങൾ അവിടെത്തന്നെ വന്നിട്ട് ഇപ്പോൾ രവിലെ ഇപ്പോൾ ഒരു നിങ്ങള് പറഞ്ഞിട്ട് ഇലവൺ തേർട്ടിക്കാണു ഒക്കേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു ഒരു ടൺ അല്ലെങ്കിൽ നയൻ ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ അവിടുന്ന് ആൾക്കാര് വരും അപ്പോൾ അവര് അത് ചെയ്യും അവര് അവിടുന്ന് എല്ലാം ഫിക്സ് ചെയ്ത് ആൾമോസ്റ്റ് എല്ലാത്തിൻറ്റെയും സെറ്റ് ചെയ്ത് കൊണ്ടുവരും ബാക്കിയുള്ളത് അവിടെ വെച്ചാണ് സെറ്റ് ചെയ്യുക അങ്ങനെ ഒക്കുമോ റോസസ് അല്ലെ ഓക്കേ റോസ്സെസും അപ്പോൾ ഐവറി നമുക്ക് ആണോ ആണോ അപ്പോൾ നമുക്ക് ഒരു ജാസ്മിൻ ചെയ്താലോ ജാസ്മിനും അപ്പോൾ നമുക്ക് ജാസ്മിനും ജാസ്മിനും റെഡ് റോസെസ്സും ആണ് വേണ്ടത് അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം ഞാൻ നോക്കട്ടെ ജാസ്മിനായാലും റെഡ് റോസസ് ആയാലും നമുക്ക് കിട്ടുകയാണേൽ അവൈലബിലിറ്റി കൂടുതലായത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നാളെ ഞാനൊരു ട്ടൻ തേർട്ടി ആകുമ്പോൾ ട്ടൻ തേർട്ടി നിൽക്കേണ്ട അപ്പോൾ നമുക്കൊരു നയൻ തേർട്ടി ആകുമ്പോൾ ഞാൻ കാൾ ചെയ്യാം ഓക്കേ അപ്പോൾ അപ്പോഴേക്കും നമുക്കവിടെ വന്നു സെറ്റ് ചെയ്യാമല്ലോ അവർ അവിടുന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമായിരിക്കും ഞാൻ കാൾ ചെയ്യുക അപ്പോൾ റെഡി ആയിട്ടുണ്ടാകുല്ലോ ഓക്കേ വീട്ടില് തന്നെയല്ലേ ഓക്കേ വീട്ടില് തന്നെയല്ലേ

ഓക്കേ ഓക്കേ ഓക്കേ റേറ്റ് നമുക്ക് എല്ലാം കൂടി നമുക്കൊരു ഒരു ട്വൻറ്റി ട്വൻറ്റിഫൈവിനുള്ളിൽ വരും അതായത് നമുക്ക് ഇപ്പോൾ ഡോർ വെയ് വരും പിന്നെ വാക് വെയ് വരും പിന്നെന്താ സ്റ്റേജ് ഫുള്ള് വരും അപ്പോൾ പിന്നെ നമുക്ക് പ്രോപ്പർട്ടീസിലും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ട്വൻറ്റി ട്വൻറ്റിഫൈവിന്റെ അകത്ത് നമുക്ക് ചെയ്യാം ഓക്കേ നമ്മളോര് നാളെ ചെയ്യാം ഓക്കേ ഓക്കേ താങ്ക്യൂ